ആ ഞാനേ ഇപ്പൊൾ ഗോവയിൽ നിന്ന് വന്നതാണേ ഇവിടെ ഫെസ്റ്റിവലൊക്കെ അടിപൊളിയാന്നു പറഞ്ഞുകേട്ടിട്ടുണ്ട് ഇപ്പൊൾ അപ്പൊൾ കേരളത്തിലെ ഫെസ്റ്റിവൽ ഏതൊക്കെയാണ് ആ ആ ഈ ഓ വിഷുവൊക്കെ എപ്പോഴാണ് വരിക ഏതുസമയത്താണ് വരിക

ഓണം ഞാൻ ഗോവയിൽ നിന്ന് സദ്യയൊക്കെ ഉണ്ടാക്കില്ലേ അതൊക്കെ എപ്പോഴാണ് ആ എന്തൊക്കെയുണ്ടാവും ആ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള പായസമേതാണ്

ആ വേറെ ഡിമാൻഡ് ഏതാണ് പോയിന്ന് പറഞ്ഞത് ആ ഓക്കെ ഓക്കെ നമ്മളീ അമ്പലപ്പുഴ പാൽപ്പായസമോക്കെ ഈ ഓണത്തിനോട് ബദ്ധപ്പെട്ടിട്ടുള്ളതാണോ ആ ഓക്കെ ആ ഓക്കെ ഈ ദീപാവലിക്കെന്താണ് പ്രത്യേകത ശരിക്കും ദീപാവലിക്കാണോ വിഷുവിനാണോ പടക്കം പൊട്ടിക്കുക ആ ഓക്കെ മാഡം എന്തായാലും താങ്ക്യൂ ഞാൻ കുറെ കാലമായിട്ട് ഇതൊക്കെയറിയാൻവേണ്ടി നിൽക്കുവായിരുന്നു താങ്ക്യൂ താങ്ക്യൂ